ഹലോ നിയർ സൂപ്പർ മാർക്കറ്റല്ലേ ഫേസ് പാക്ക് ഏതൊക്കെ അവൈലബിളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ മ്

മ്മ് ഓക്കെ

ഓക്കെ എങ്ങനെയാ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മ് ഓക്കെ എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആണ് അപ്പം അതിനു ആ ഇത് പോകുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതലായിട്ട് പോകുന്നത് ഈ പ്രോഡക്റ്റാണോ ഓക്കെ അപ്പോൾ മ് ഓക്കെ അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ഡെലിവറി കാര്യങ്ങൾ വരുന്നത് ഹോം ഡെലിവറി ഒക്കെ അവൈലബിളാണോ ഓക്കെ അപ്പോൾ ഫ്രീ ഡെലിവറി ആണോ അതോ ഓക്കെ പിന്നെ ഫേസ് വാഷ് വരുമ്പോഴും അതുപോലെത്തന്നെ എന്തൊക്കെ പ്രോഡക്റ്റാണ് അതിനുള്ളത് ഫേസ് വാഷ് ഫേസ് വാഷ് മ് മ് മ് ഓക്കെ മ് മ് ഓക്കെ മ് കസ്റ്റമർ റിവ്യൂ ഓക്കെ നല്ലതായിട്ടുള്ളതാണോ പോസിറ്റീവ് റിവ്യൂ ഇതുതന്നെയാണോ നമ്പർ ഇതിൽത്തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ ഓക്കെ നമ്മളിപ്പോൾ ഷോപ്പിൽ വന്നു പർച്ചെയ്സ് ചെയ്യണമെങ്കിൽ എപ്പോൾ വരെ ആയിരിക്കും ഷോപ്പ് ടൈം അവൈലബിളായിട്ടുള്ളത് എല്ലാ ഡേയ്സും ഉണ്ട് ഇരുപതു വരെയല്ലേ ആ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാം ഓക്കെ എന്നാൽ ശരി